എൻറെ കയ്യിലിരിക്കുന്നത് ബെഡാണ് ഞാൻഎടുത്തത് ഒരു ബെഡാണ് അപ്പം സ്പ്രിംഗ് മാട്രസ് ആണ് ഞാനെടുത്തത് അപ്പോൾ ഞാനിപ്പോൾ നല്ല ഓൺലൈൻ കണ്ടിട്ടെടുത്തതാണ് നല്ലൊരു പ്രോഡക്റ്റാണ് പ്രോഡ പ്രോഡക്ട് എൻ്റൊരു ഫ്രണ്ട് യൂസ് ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളോന്നുല്ല റേറ്റ് ഒരു പത്തിനൊന്ന് ചില്ലറ വരും അപ്പം നല്ല രീതിയിൽ കിടക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നല്ല എന്താ കംഫർട്ട് ആയിട്ട് നമുക്ക് കിടക്കാം ഒരു കിംഗ് ആ മോഡലാണ് ഞാൻ എടുത്തത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിടക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് ആ പിന്നെന്താ അതിൻറെ ഒരു നെഗറ്റീവ്ന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്പ്രിംഗ് ആക്ഷൻ കൂടുതലായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാൾ ഒന്നനങ്ങി കഴിഞ്ഞാൽ മറ്റേയാളും അനങ്ങണ്ട ഒരവസ്ഥയാണ് ഉള്ളത് പിന്നെ ഇപ്പൊന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോക്കെ വീണു കഴിഞ്ഞാൽ ബെഡ് വേഗം നാശമായി പോകാനും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ കുറേനാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കുറേനാള് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രിംഗ് ആക്ഷൻ കൂടീട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല പിന്നേ സ്പ്രിംഗ് ചിലപ്പോൾ പൊട്ടനുള്ള ചാൻസ് കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിൻറെ നെഗറ്റീവായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം